പത്രത്തിലും മൊബൈൽ ഫോണുകളിലും വരുന്ന വാർത്തകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും പത്രത്തിൽ വരുന്ന പോലെ സത്യസന്ധമായൊരു വാർത്തകളായിരിക്കത്തില്ല മൊബൈൽ ഫോണിൽ വരുന്നത് മൊബൈൽ ഫോണിൽ പലതരം ഫേക്ക് ന്യൂസുകൾ വരാറുണ്ട് അത് സത്യസന്ധമായ ഒരു വാർത്തയാവാൻ വഴിയില്ല ഒരിക്കലും മൊബൈൽ ഫോണിൽ സത്യസന്ധമായ വാർത്ത വരാൻ വഴിയില്ല കാര്യമെന്നു വെച്ചാൽ അത് കോളിഫയ്ഡ് ആയിട്ടുള്ള ജേണലിസ്റ്റുകളുടെ പരിശ്രമഫലമായിട്ടുണ്ടാകുന്ന ഒന്നുമല്ല അവരവരുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തിന് വേണ്ടീട്ട് അവർ അവരുടെ മൊബൈൽ അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടീട്ടും മറ്റ് റീച്ച് കൂട്ടാൻ വേണ്ടീട്ടുമൊക്കെ ഇടുന്ന വാർത്തകളാണ് മൊബൈൽ ഫോണിൽ വരാറുള്ളത് ഒരിക്കലും പത്രത്തിൽ രണ്ടുമൂന്നു തവണ ചെക്ക് ചെയ്ത് അച്ചടിച്ച് വരുന്ന വാർത്തയുടെ അത്ര വിശ്വാസ്യത ഒരിക്കലും മൊബൈൽ ഫോണിൽ ഉള്ള വാർത്തയ്ക്ക് വരത്തില്ല ഇപ്പോൾത്തന്നെ ശിരൂരിൽ നടന്ന അപകടമരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ശിരൂരിൽ നടന്ന അപകടമരണത്തിൽ അർജുൻ്റെ തല വേർപെട്ടു കാലുകൾ വേർപെട്ടു ബോഡി കിട്ടി ക്യാബിൻ രണ്ട് തരത്തിലായി വണ്ടിയുടെ ക്യാബിൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പലതരം വാർത്തകൾ മൊബൈൽ ഫോണിൽ വരുകയും അത് ഒരു സൈബർ ആക്രമണത്തിന് അവരുടെ കുടുംബക്കാർ ഇരയാവുകയും ചെയ്ത വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും കാണുമായിരിക്കും അതേപോലെ അത് ഒരിക്കലും അങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ വന്നിട്ടില്ല ഒരിക്കലും ലോറി കിട്ടിയെന്നോ അല്ലെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടിയെന്നോ ഒന്നും സമൂഹത്തിൽ ടി വിയിലോ പത്രത്തിലോ അങ്ങനെ ഒരു വാർത്ത വന്നില്ല മൊബൈൽ ഫോണിൽ വരുന്ന ഈ ഇത്തരം വാർത്തകൾ സത്യസന്ധമാണോ അത് വിശ്വസിക്കുവാനും സാധിക്കത്തില്ല കാര്യമെന്നുവെച്ചാൽ അതൊരിക്കലും സത്യസന്ധമായിരിക്കത്തില്ല പലതരത്തിലുള്ള ആൾക്കാർ അവരവരുടെ കാര്യസാധ്യത്തിനു വേണ്ടീട്ടോ അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ അവരുടെ ചാനലിൻ്റെ റീച്ചിൻ്റെ റേറ്റിംഗ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ വാർത്തകൾ ഇടുന്നത് പത്രത്തെ പത്രത്തിലാകുമ്പോൾ ഒരിക്കലും കള്ളവാർത്ത വരാനുള്ള വഴി ഇല്ല പിന്നെ നോക്കുമ്പോൾ റേഡിയോ പണ്ട് റേഡിയോ ആൾക്കാർ ഒരുപാട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമാണ് റേഡിയോ ഇന്ന് വളരെയധികം അന്നധികം അന്നൊക്കെ അത് വളരെയധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു മാധ്യമമാണ് സാധാരണ ജനങ്ങൾ പോലും വാർത്ത കേൾക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന ആശ്രയിച്ചിരുന്ന പ്രദേശത്ത് ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ അറിയാൻ വേണ്ടീട്ട് ഉപയോഗിച്ചിരുന്നത് റേഡിയോ ആണ് പക്ഷേ ഇന്ന് റേഡിയോ ഒക്കെ കാലഹരണപ്പെട്ട ഒരു മാധ്യമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് കൂടുതൽ ജനങ്ങളും പത്രങ്ങളെ പത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് പത്രങ്ങൾ ഇന്ന് പക്ഷേ ഇന്നത്തെ യുവതലമുറ ഒരിക്കലും പത്രത്തെ പത്രത്തെക്കാൾ കൂടുതൽ പിന്നെ യൂട്യൂബിനെയും ഒക്കെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് ഇന്നുള്ളത് അത് അവരുടെ അതവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ പത്രം വായിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക വഴി ലോകത്തുള്ള നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് അത് വായനശീലം കൂട്ടുവാനും ഒക്കെ പത്രവായന കൊണ്ട് നമുക്ക് സാധിക്കും പക്ഷേ പത്രവായന ഒരിക്കലും മൊബൈൽ ഫോണിനെയോ വെച്ച് മൊബൈൽ ഫോണിനെ താരതമ്യം ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലുണ്ടാകുന്ന വാർത്തയേക്കാളും ഒക്കെ സത്യസന്ധത പത്രം പത്രത്തിനായിരിക്കും പത്രം എന്ന് പറഞ്ഞാൽ കഴിവുള്ള പത്രപ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പത്രവാർത്തകൾ ഒരു സ്ഥലത്തും അവർ പോയി അവരവരുടെ രീതിയിൽ പത്രങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് പേ പത്ര വാർത്തകളൊക്കെ കണ്ടുപിടിച്ച് അവരത് ജനങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ അർപ്പണബോധവും ഒക്കെ കൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം